ബാല്യകാലസഖി എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ വായിച്ചിട്ടാണ് ഏറ്റവും കൂടുതല് ഞാൻ ജീവിതത്തില് കരഞ്ഞിട്ടുള്ളത് അത് പറയുമ്പോള് നിത്യ ഹരിത നായകനായ മമ്മൂട്ടിയുടെ വാക്കുകള് തന്നെ നമുക്ക് കടമെടുക്കാം ബാല്യകാലസഖിക്ക് എന്നും ബാല്യമാണ് അതെഴുതിക്കഴിഞ്ഞിട്ട് എൺപത് വർഷമായി പക്ഷെ സുഹറയ്ക്കും മജീദിനും ഇപ്പോള് പ്രായം കുറവായിട്ട് തന്നെ നമ്മുടെ മനസിലന്നത്തെ പ്രായംതന്നെ നമുക്ക് തോന്നും അതാണ് സത്യം വായനക്കാരുടെ ഹൃദയത്തിൽ സുഹറയ്ക്ക് ഏഴും മജീദിന് ഒമ്പതും വയസ്സാണ് എന്നും അവരുടെ ബാല്യമെന്നും നിത്യഹരിതമാണെന്നുമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ബഷീറിന്റെ ബാല്യകാല സഖിയേക്കുറിച്ച് നമ്മുടെ സിനിമ അഭിനേതാവായ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളത് ഞാനും ജീവിതത്തിലേറ്റവും അധികമെന്നെ ജീവിതത്തില് വേദനിപ്പിച്ചിട്ടുള്ള നോവലും അതിതാണ് ബാല്യകാലം തൊട്ടേ സുഹറയും മജീദും തമ്മിലുള്ള സൗഹൃദം നമ്മളെ ആശ്ചര്യപ്പെടുത്തും സമ്പത്തെല്ലാം ജീവിതത്തില് നഷ്ടപ്പെടുമ്പോള് മജീദിന്റെ കുടുംബം തീരെ ദാരിദ്ര്യത്തിലാവുന്നു അവർക്ക് മജീദിനും സുഹറയ്ക്കും ഒരിക്കലും ഒരുമിക്കാൻ പറ്റാത്ത രീതിയില് കുടുംബങ്ങളങ്ങകന്ന് പോകുന്നു ദാരിദ്ര്യത്തിൽ നട്ടം തിരിയുന്ന മജീദ് പല പല ജോലികള് ചെയ്യും സുഹറയെ സ്വന്തമാക്കാനുള്ളവന്റെ മനസ്സിന്റെ തീവ്രമായ ആഗ്രഹങ്ങളൊന്നും അവന് സഫലമാവുന്നില്ല നല്ല മൊഞ്ചത്തിയായ സുഹറയെ ഒരിറച്ചി വെട്ടുകാരനാണ് നിക്കാഹ് ചെയ്തുകൊടുക്കുന്നത് അവളുടെ ജീവിതം പിന്നെ നരകതുല്യമായിട്ട് തീരുന്നു സ്വർഗ്ഗത്തിലെ ഹൂറി പോലിരുന്ന സുഹറയെ മജീദ് കാണുമ്പോൾ പല്ലുകളിളകി കൈമുട്ടുകൾ മുഴച്ച് ഒരു വികൃതക്കോലമായിട്ടാണ് ബഷീറിന്റെ വർണ്ണന നമ്മളെ കരയിപ്പിക്കും ഹോട്ടൽ പണിക്കാരനായ മജീദും ആരോഗ്യമെല്ലാം ക്ഷയിച്ച് മരണപ്പെടുന്നതാണ് നമ്മള് കാണുന്നത് സുഹറയും പലവിധ രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് മരണത്തെ പൂവുകയാണ് ഈ നോവല് നമ്മൾ എന്ന് വായിച്ചാലും കരഞ്ഞു പോകുന്ന ഒരു നോവലാണ്